സാങ്കേതികവിദ്യ ബാങ്കിംഗ് രംഗത്ത് എത്രത്തോളം ഗുണമുണ്ടാക്കിയെന്നു പറയാന്ന് സാങ്കേതികവിദ്യ കാരണം നമുക്ക് ബാങ്കിംഗ് മേഖലേനെ ഈസി ആക്കാ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ഇത്രനാളും നമ്മൾ ഫിസിക്കൽ ക്യാഷ് കൊണ്ടാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്യാഷാന്ന് അതായത് ഗൂഗിൾ പേ ഗൂഗിൾ പേയെന്നു വെച്ചു കഴിഞ്ഞാൽ വലിയൊരു സാങ്കേതികവിദ്യൻ്റെ ഒരു പുരോഗമനമാന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാനോ അതുപോലെതന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ബില്ലടയ്ക്കാനോ ഈവൻ ഓൺലൈനായിട്ട് ഒരു സാധനം വാങ്ങാനോ ഫുഡ് നമ്മുടെ വീട്ടിലേക്ക് ഓൺലൈനായിട്ടെത്തും പൈസ ബിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ മാത്രം മതി അങ്ങനങ്ങനെ ഗൂഗിൾ പേനെ കൊണ്ട് നമുക്ക് വലിയ വലിയ ഉപകാരങ്ങളുണ്ടായി അതൊരു വലിയൊരു സാങ്കേതികവിദ്യ അതുപോലെതന്നെ രണ്ടാമത്തെന്നു വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമ്മുടെ ബാങ്കിൽ എത്രയാണോ പൈസയെന്ന് അറിയാൻ പറ്റും നമുക്ക് മെസ്സേജ് വരും നമുക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ട് ഇത്ര പൈസ വന്നി ഇത്ര പൈസ കുറഞ്ഞു അ അ അത്രയും അത്തരം വിവരങ്ങൾ നമ്മൾ ഇവിടെയിരുന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇതെല്ലം സാങ്കേതികവിദ്യയുടെ പുരോഗമനം കൊണ്ട് മാത്രമാണ് അതുപോലെതന്നെയാന്ന് നമുക്ക് എന്തൊരു മാ ബാങ്കിംഗ് ഇതര സേവനങ്ങളെക്കുറിച്ചിട്ട് നമുക്കറിയുകയും നമുക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി അപ്പോൾ അവരെടുത്തിട്ട് നമുക്ക് എന്തെല്ലാം ബാങ്കിംഗ് മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ വിശദമായിട്ട് പറഞ്ഞുതരും നമുക്കൊരു ദൂരെ ഗൾഫിലാട്ടെയും ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ് അപ്പോൾ ഒരു ലോൺ വേണം ഓർടെ പേരിലാണ് ആധാറുള്ളത് എങ്കിൽ പോലും നമുക്ക് അവരെ പ്രോ അതു നമുക്കവരെ പവർ ഓഫ് അറ്റോണി അവരാക്കി തന്നിട്ട് അതായത് ബാങ്കുകാരാക്കി തന്നിട്ട് നമുക്ക് ലോണെടുത്തു തരുന്നുണ്ട് ഇതെല്ലാം സാങ്കേതികവിദ്യ കൊണ്ട് മാത്രമാന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇതെല്ലാം കൊണ്ട് നമുക്ക് ബാങ്കിംഗ് മേഖലയിൽ തന്നെ വളരെ പുരോഗമനത്തിലേക്കാണ് ഇപ്പം നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മനുഷ്യൻ്റെ ഇടപെടലുകളുടെ അഭാവം വലിയ ആശയക്കുഴപ്പത്തിലൊന്നും ഇതുവരെ നമ്മളെ എത്തിച്ചിട്ടില്ല